എന്നേ ഏറ്റവുമധികം സന്തോഷിപ്പിക്കുന്നത് ഞാനിഷ്ടപ്പെടുന്നവരുടെ ഞാനേറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ അരികില് ഇരിക്കുന്നതാണ് എന്നേ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് എന്റെ അമ്മയും എന്റെ മക്കള് എന്റെ ഹസ്ബന്ഡ് എന്റെ അനിയന് എന്റെ അച്ഛന് എല്ലാവരുടെയും ഞാന് ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്നവരാണ് അവരുടെ കൂടേ സമയം ചെലവഴിക്കുന്ന ചെലവഴിക്കുന്നതൊക്കെയാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്